ആ ഹലൊ ഹലോ ആ ചേച്ചി ഞാൻ വിളിച്ചതേ നിങ്ങൾ നാളെയല്ലേ പോകും എന്ന് പറഞ്ഞിരുന്നത് ആ ഓക്കെ രണ്ട് മാസത്തേക്കല്ലേ പോവും എന്ന് പറഞ്ഞിരുന്നത് ആ എന്നോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ മറന്ന് പോയോ ആ ഓക്കെ പിന്നെ എന്തൊക്കെയാ ഞാൻ വന്ന് വൃത്തിയാക്കേണ്ട ഹലോ ഓക്കെ ഓക്കെ ശരി ശരി രണ്ട് ദിവസങ്ങളിൽ വന്നാൽമതി ഏതെങ്കിലും രണ്ട് ദിവസം ഞാൻ വന്നാൽ മതിയാവുമല്ലോ ഓക്കെ ഓക്കേ ശരി ശരി താക്കോൽ എവിടെ ആയിരിക്കും കൊടുത്തിട്ട് പോവുക വീട്ടീൽത്തന്നെ വെച്ചിട്ടായിരിക്കുമോ പോവുക അതോ അടുത്ത് എവിടെ എങ്കിലും കൊടുത്തിട്ട് പോവുമോ ഓ എൻ്റെ കയ്യിൽ തന്നെ ഏല്പിച്ച് ആ മ് ശരി ഓക്കെ ഓക്കെ ശരി ശരി അ പിന്നെ വേറെ എന്തായിരുന്നു വേറെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ശരി ഓക്കേ ഓക്കെ ഓക്കെ അതൊക്കെ ചെയ്തോളാം ശരി പിന്നെ വേറെ കിച്ചൺലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അണല്ലോ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ ഓഫ് ചെയ്തണല്ലോ ഇട്ടിരിക്കുന്നത് അതോ ഞാനൊന്ന് നോക്കണോ ആ ഹാ ഓ ശരി ശരി റൂമിൽ വലയൊക്കെ അടിക്കണമല്ലോ

അവർ അവർ പുല്ല് പറിക്കുമായിരിക്കുമോ അതോ ഞാൻ പുല്ല് പറിച്ചിട്ട് കൊടുക്കണോ അതിന് ശരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എന്നാൽ ഇടയ്ക്ക് നോക്കിയേക്കാം ഓ ശരി ശരി അപ്പം പട്ടിനെ കുളിപ്പിക്കുന്ന കാര്യം ഒക്കെയോ രണ്ടുദിവസം കൂടുമ്പം ശരി അപ്പം ഫുഡ്ഡ് കൊടുക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ അവർ തന്നെ ആയിരിക്കുമോ ഡെയ്ലീ ഫുഡ്ഡ് കൊടുക്കുക ആ ആ കൊടുത്താൽ ഓക്കെ ഓക്കെ ശരി ശരി ആ ശരി ശരി അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയേ ആ അതൊക്കെ ഞാൻ നോക്കിയേക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ ആ അത് ഞാൻ ക്ലീൻ ചെയ്തേക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ അത്യാ ശരി ശരി ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തേക്കാം ഓക്കെ ശരി ഏച്ചി എന്നാൽ